നഗരത്തിലെ ഗ്രാമത്തിലെ സ്കൂളുകളെന്നാൽ എൻ്യർലി ഡിഫറൻ്റ് ആണ് നഗരം എന്നു പറഞ്ഞാൽ അവർക്ക് ആസ്വദിച്ചു പിള്ളേർക്ക് നടക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ കുട്ടികളൾ വളരെ കുറവായിരിക്കും കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും ഗ്രാമത്തിലെ സ്കൂളുകളിൽ പക്ഷേ അവരുടെ പരസ്പര സ്നേഹവും കമ്മ്യൂണിക്കേഷനും ആയ കാര്യങ്ങളെല്ലാം വളരെ മുൻപന്തിയിൽ അവരെ നിൽക്കും നഗരത്തിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും അവർ എത്തപ്പെടുന്നു പല കൾച്ചറുകളിൽ നിന്നുള്ള പിള്ളേരായിരിക്കും അവർ കൂടുതലും ഇൻറ്റർനാഷണൽ ലാംഗ്വേജുകൾ യൂസ് ചെയ്യുകയും അവരുടെ വിദ്യാഭ്യാസമായ കാര്യങ്ങളിൽ അവർ മുന്നിട്ടു നിൽക്കുമെങ്കിലും ഗ്രാമത്തിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ സനേഹത്തിലും അവരുടെ കമ്മ്യൂണിറ്റിയും അവർ പ്രത്യേകിച്ചു ചിലപ്പോൾ ഒരു കമ്മ്യൂണിയിറ്റിൽ നിന്ന ആളെ കുട്ടികളും വളരെ ഡിഫറെൻറായി പക്ഷേ അവരെ അവർ പരസ്പരം വളരെ സ്നേഹത്തോടെ മുന്നേറുകയും അവരുടെ കലാപരമായ കാര്യങ്ങളിലെല്ലാം അവരെ ഗ്രാമങ്ങളിലെ നാട്യമായ പരമായ കാര്യങ്ങളിൽ അവർ മുന്നേറുകയും ചെയ്യും അവരുടെ തനതായ സ്വഭാവവും തനതായ ശൈലികളും അവർ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്ന നാട്ടിൻ പ്രദേശങ്ങളിൽ അവൾ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല പുറം ലോകവുമായിട്ട് കൂടുതലും അറിയപ്പെടുന്നില്ല അവർ ആ കൊച്ചു ഗ്രാമത്തിൽ അവർ ജീവിക്കുകയും അവരുടെ ചുറ്റുപാടുകൾക്ക് അനസൃതമായി അവർ വളരുകയും അവർ മിതമായ രീതിയിൽ കിട്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ മുന്നേറുകയും ചെയ്യുകയും ചെയ്യുന്നു എങ്കിലും ഗ്രാമങ്ങളിലെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്നേഹത്തോടെ വളരുകയും മറ്റുള്ളവരോടുള്ള കെയറിങ്ങും ഷെയറിങ്ങും എല്ലാം നടക്കുകയും ചെയ്യുന്നതോടെ പക്ഷേ നഗരങ്ങളിലെ കുട്ടികൾ വ്യത്യസ്തരാണ് അവർ ഒരു ഒരു തുറസായ രീതിയിൽ നിന്നല്ല അവർ വരുന്നത് ഒരു ലിമിറ്റഡ് ഏരിയയയിൽ നിന്ന് അതോ ഫ്ലാറ്റുകളിൽ ജീവിക്കുകയും അവർ കൂടുതൽ ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യപ്പെടുന്നില്ല അവർ വരികയും ആ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ പഠന കാര്യങ്ങളിൽ അവർ മുന്നോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോവുകയും അവർ ആ ഒരു ഷെയറിങ്ങോ കെയറിങ്ങോ അധികം നടത്തപ്പെടുകയില്ല അവരുടെ കാര്യങ്ങളിൽ അവർക്ക് തമ്മിൽ വളരെ വലിയ ഡിഫറൻസുകളുണ്ട് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ വലിയ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളും അവരുമായിട്ട് ചെന്ന് മിംഗിൾ ചെയ്യുമ്പോൾ ആദ്യമെല്ലാം മിംഗിൾ ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പിള്ളേരാണ് ഇവർ എങ്കിലും ഗ്രാമം കൂടുതൽ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്ക് ഗ്രാമത്തിലെ വളരാനും സഹായിക്കുകയും ചെയ്യും നഗരത്തിലെ കുട്ടികൾക്ക് അവർ അവർ വരുന്ന രീതിയും അവർ കൂടുതലും പ്രകൃതിയുമായിട്ടും മിംഗിൾ ചെയ്യാത്ത കുട്ടികളാണ് നഗരത്തിൽ കൂടുതലും കെട്ടിടങ്ങളിലും കൂടുതലും ബിൽഡിങ്ങുകളും അതിൻ്റെ ഇടയിലൊക്കെ ജീവിക്കുന്ന പിള്ളേർ കൂടുതൽ കൃഷിയെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളിൽ പ്രകൃതിയിലെ അനുഭവങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നില്ല അവർ സാങ്കേതിക വിദ്യയിലോട്ട് കൂടുതൽ മുന്നേറുകയും സാങ്കേതികമായ രീതിയിൽ വളരാനും ശ്രമിക്കുന്ന പിള്ളേരാണ് നഗരത്തിലെ പിള്ളേർ ഗ്രാമത്തിലെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരവും ചെടിയും കായും പൂവുമെല്ലാം കണ്ടു വളരുന്നത് കൊണ്ട് പക്ഷികളെയും മൃഗങ്ങളെയും അതിൻ്റെ അവരെ അത് വളർത്തുന്ന രീതികളും അത് ചെറുപ്പം മുതൽ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്താണ് വളരുന്നത് അപ്പം ഒരു പശുവിനെ വളർത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരിൽ അതിൽ അത് അവരിൽ ഇൻപാക്ട് നല്ലോണം ചെയ്യുന്നുണ്ട് അവരതിനെ വളർത്താൻ ശീലിക്കുന്നു അതിനോട്ടുള്ള പേടി ഉണ്ടായിരിക്കുകയില്ല പല ജീവികളോടും അവർക്ക് പേടി ഒന്നും ഉണ്ടായിരിക്കില്ല നഗരങ്ങൾ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പക്ഷെ നഗരങ്ങളിലെ കുട്ടികൾ ഇതൊന്നും കാണാതെയും കേൾക്കാതെയും വളരുന്നത് കൊണ്ടും അതിനോട് കൂടുതൽ അവർക്ക് അതിനോട് എക്സ്പോസ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അതിനെ അറിയുക പോലും ഉണ്ടായിരിക്കുകയില്ല എങ്ങനെയാണ് ഇപ്പം അതിനെ പോയി കാണുകയും അവർക്ക് അറിയുക പോലും ഉണ്ടാവില്ല പാൽ എവിടെ നിന്നു വരുന്നു മിൽക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് പോലും അറിയുന്ന പിള്ളേർ ഉണ്ടായിരിക്കുകയില്ല പക്ഷെ ഗ്രാമത്തിലെ കുട്ടികൾ അങ്ങനെയല്ല അവരെല്ലാം കണ്ടു വളരുന്നത് കൊണ്ട് അവർക്ക് അത് മനസ്സിൽ തറവുമായിട്ടിരിക്കും അവരുടെ മൃഗങ്ങളോടും ചെടികളോടും മരങ്ങളോടുള്ള അവരുടെ മനസ്സിൽ നല്ല സ്നേഹമുണ്ടായിരിക്കും പക്ഷെ ഗ്രാമത്തില കുട്ടികൾ ഒരിക്കലും പ്രകൃതിയോട് ഒരു സ്നേഹം വരുന്നില്ല അവർ സോഷ്യൽ മീഡിയയോടും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും അങ്ങനെയുള്ള ഒരു ലോകത്തോട് എക്കണോമിക് ലോകത്തോട് അവർ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കും എല്ലാ കാര്യങ്ങളും മെഷീനുകൾ വഴി അവർക്ക് പ്രവർത്തിക്കപ്പെടുകയും അത് അതാണ് അവരുടെ മനസ്സിൽ കൂടുതലും തങ്ങി നിൽക്കുക വളരുന്ന സാഹചര്യം നല്ല ഡിഫറൻറ് ഉണ്ട് കുട്ടികൾ എൻ്യർലി ഡിഫറെൻ്റ് ആണ് കൂടുതൽ അവ വളർച്ച ആരിലെന്ന് ചോദിച്ചാൽ ഇവർ പ്രകൃതിയോട് ഇണങ്ങി വളരുന്നവരും അവർ നഗരത്തിലെ കുട്ടികൾ അവർ സോഷ്യൽപരമായും ഡെവലപ്മെൻറ് അവർക്ക് നടക്കുന്നുണ്ട് കമ്മ്യൂണിറ്റികളൊക്കെ വഴി എങ്കിലും കൂടുതലും കണ്ടറിഞ്ഞു വളരാൻ പറ്റുന്നത് നഗര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കാണ് പക്ഷേ അവരുടെ നഗരത്തിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ക്ലാസ്സിൽ സ്റ്റുഡൻറ്സുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അപ്പം ടീച്ചറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറഞ്ഞിരിക്കും പക്ഷെ ഗ്രാമത്തിൽ കുട്ടികളുടെ ക്ലാസ്സുകളിൽ വളരെ കുറച്ചു സ്റ്റുഡൻറ്സുകളെ ഉണ്ടാവുകയുള്ളൂ അവരും ടീച്ചേഴ്സും അവരുടെ പേരെൻസുമായിട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് അതെല്ലാം അവരിൽ ഇപാക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കായികപരമായും വളർന്നു വരാൻ വേണ്ടിയിട്ട് നാട്യ കലകളെല്ലാം അറിയാവുന്നത് ഗ്രാമങ്ങളിലെ കുട്ടികൾക്കാണ് പല പണ്ടത്തെ പല കളികളും ഇന്ന് നഗരങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അറിഞ്ഞുകൂട ഗ്രാമത്തിലെ കുട്ടികൾ ഇന്നും അത് ഫോളോ ചെയ്യുകയും അത് കളിക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നഗരത്തിലെ കുട്ടികളിൽ പുതിയ പുതിയ ടൂർണമെൻറ്റുകളും പുതിയ ബിൽഡിങ്ങുകൾക്ക് അകത്തുള്ള ഗെയിമുകളുമൊക്കെയായി സമയം കണ്ടെത്തുന്നു ഗ്രാമത്തിലെ കുട്ടികൾ ഏതോ കാടുകളും മേടുകളും ഒക്കെ ചാടിയും നടന്നും ഓടിയും ചാടിയും പുഴകളും തോടുകളും ഒക്കെ ഓടിച്ചാടി നടന്നു മീനിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്നും അതിനെല്ലാം ഒരോ കളിയുടെ ഭാഗമായിട്ട് അത് മുന്നേറി നടന്നു പോകാറുണ്ട്